ഞാൻ തയ്യലൊരുവിധം അറിയാവുന്നൊരു വ്യക്തിയാണ് ഞാൻ എനിക്കാവശ്യമുള്ള വസ്തുക്കളൊക്കെ ഞാൻ ഒരുവിധപ്പെട്ടതൊക്കെ ഞാൻ തന്നെയാണ് തയ്ച്ചെടുക്കാറുള്ളത് പക്ഷെ ഞാൻ തയ്ച്ച് കൊടുത്ത് അതൊരു പ്രൊഫെഷണനാക്കി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പിന്നെ അത്യാവശ്യം പ്രായം ഒത്തിരി പ്രായം ചെന്നവരൊക്കെ എന്തെങ്കിലും തയ്ക്കാന് പറഞ്ഞ് എന്റെ കയ്യില് കൊണ്ടുത്തന്നാല് അതൊക്കെ അടിച്ചുകൊടുക്കാറേ ഞാൻ ചെയ്യാറുള്ളു പിന്നെ തയ്യലല്ല ജീവിതം തയ്യൽ എൻ്റെ ജീവിതത്തില് ചെലുത്തിയ സ്വാധീനമെന്നുവച്ചാല് എൻ്റെ കുഞ്ഞുങ്ങൾക്കാവശ്യം ഉള്ള ഡ്രെസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടംപോലെ തയ്ച്ചു കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ ബോ നമ്മളൊരു തുണിയെടുത്തുകൊണ്ടു വന്നുകഴിഞ്ഞാൽ അത് മറ്റൊരാളുടെ കൊടുത്ത് തയ്ച്ച് കിട്ടുന്നതിനു സമയങ്ങളെടുക്കും അവരുടെ സമയത്തിന് നമ്മള് നോക്കി നില്ക്കണം ഇതാവുമ്പോള് നമ്മുടെ ഇഷ്ടത്തിന് നമ്മള് തയ്ച്ച് എടുക്കാം പ്രത്യേകിച്ച് നമുക്ക് രണ്ട് ചെറിയ പീസ് തുണി ഉണ്ടേ പോലും നമുക്കതൊരു ഉടുപ്പായിട്ട് ഫോർമേഷൻ ചെയ്തുകഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങള്ക്ക് ഉപയോഗിക്കാന് പറ്റും എനിക്ക് എൻ്റെ ഇളയ മോള്ക്കിപ്പോള് പതിനൊന്ന് വയസ്സേ ഉള്ളു പക്ഷെ രണ്ട് വെട്ട് പീസ് കിട്ടിയാല്പ്പോലും നമ്മള്ക്കത് ഉപയോഗിക്കാന് പറ്റും അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ചെറിയ ഫ്രോക്കോ ചെറിയ പാവാടയോക്കെ തയ്ച്ച് കൊടുത്തുകഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വീട്ടില് ഇടുന്ന ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായിട്ടെനിക്ക് തയ്യല്കൊണ്ട് ഒത്തിരി പണമൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും തയ്യല് എനിക്ക് ഒഴിച്ചുകൂടാമ്മേലാത്തൊരു വസ്തുവായിട്ടു തന്നെയാണ് എൻ്റെ വീട്ടിലൊരു മെഷിനൂണ്ട് ആ മെഷിനിൽ ഞാൻ തയ്ക്കാറൂണ്ട് അതെനിക്ക് ഒഴിച്ചുകൂടാന് പറ്റുന്ന എൻ്റെ മെഷിൻ ഒരാഴ്ച കേടായിക്കഴിഞ്ഞാല് എനിക്ക് എനിക്ക് എൻ്റെ മെഷിനും എൻ്റെ ബൈക്ക് വണ്ടി ആക്ടീവയും ഒരുപോലെ ഫീലേയ്യുന്ന രണ്ടെണ്ണമാണ് മെഷിൻ കേടായാലും ആക്ടിവ കേടായാലും എൻ്റെ ഓരോ കൈകള് തളർന്നുപോകുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നെ കാരണം ഇത് രണ്ടും എനിക്ക് ഒരുപോലെ ഫീലേയ്യുന്ന കാരണം അത് എൻ്റെ ചിലപ്പോള് ജസ്റ്റ് ഞാൻ ഇടാൻ എടുക്കുന്നൊരു ഉടുപ്പായിരിക്കാം അതിൻ്റെ സൈഡൊന്ന് വിട്ട് കഴി പെട്ടെന്ന് പോയി തയ്ക്കാനായിട്ട് ഈ തയ്യൽ മെഷിൻ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മൾക്ക് ഞാനൊത്തിരി നൂനാടെ അങ്ങനെ വലിയതായിട്ടൊന്നും പക്ഷെ രണ്ട് മൂന്ന് നൈറ്റിയൊക്കെ കുത്തിയിരുന്ന് ഒന്നിച്ചിരുന്ന് തയ്ച്ചാലെനിക്ക് നടുവേദനയൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ തയ്യല് ഒരു പ്രൊഫെഷനായിട്ട് ഞാൻ സ്വീകരിക്കാത്തത് അതെൻ്റെ ശാരീരികമായിട്ടെനിക്ക് അത് ഹാൻഡിലീയ്യാന് പറ്റാത്തൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ തയ്യലധികം ഇത് പ്രൊഫഷനായിട്ട് സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്കത് ഇഷ്ടപ്പെടുന്ന പ്രൊഫെഷനുകൾ വേറെ ഉണ്ട് പക്ഷെ തയ്യലെനിക്കറിയാലോ ഒരുവിധപ്പെട്ട എല്ലാ വസ്തുക്കളും തയ്ച്ചെടുക്കാനും എനിക്കറിയാം നൈറ്റി ചുരിദാറൊക്കെ തയ്ച്ചെടുക്കാൻ എനിക്കറിയാം പക്ഷെ ചെയ്യാൻ എനിക്ക് മടിയാണ് പക്ഷെ മടി എന്നു പറഞ്ഞ സാധനം എനിക്ക് എൻ്റെ കൂടപ്പിറപ്പിനേ കണക്ക് ഒരാളായതുകൊണ്ട് എനിക്കീ കുത്തിയിരുന്നുള്ള പരുപാടികളൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഞാനീ മടിച്ചി ആയതുകൊണ്ടും അതെന്റെ ബേസിക്കലി എൻ്റെ ബ്ലഡിൽ അലിഞ്ഞ് ചേർന്ന സ്വഭാവമായതുകൊണ്ട് എനിക്കീ കുത്തിയിരുന്ന് തയ്ക്കലൊന്നും കുത്തിയിരുന്നുണ്ടാക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസുകെട്ടാണ് എനിക്കെന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കണം പ് നമുക്കെന്തെങ്കിലൊരു പുതിതായിട്ടതിനകത്ത് ചെയ്യാന് പറ്റുന്നതൊക്കെ അതൊക്കെയാണെങ്കില് എനിക്കിഷ്ടമാണ് അങ്ങനുള്ള ഫീൽഡൊക്കെയാണ് എനിക്ക് തിരഞ്ഞെടുക്കാനും ഇഷ്ടം അതുകൊണ്ടുതന്നെ ഞാന് തയ് ക്കല് ഒരു പ്രൊഫെഷണലായിട്ട് എടുത്തിട്ടില്ല ഒത്തിരി ഇരുന്ന് തയ്ക്കുക അങ്ങനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ തയ്ച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നൈറ്റിയൊക്കെ ഇപ്പോള് അഞ്ചും ആറും പേർക്കൊക്കെ നൈറ്റിയൊക്കെ തയ്ച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോള് ഞാനതിനെ ഇഷ്ടപ്പെടുന്ന തയ്ക്കും എന്ന് മാത്രമേ ഉള്ളു ഒത്തിരി തയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ നൂലുകളുമായി ബന്ധപ്പെടുന്ന തയ്യലില് കൂടെ മാത്രമല്ലല്ലോ നൂലുകളുമായിട്ട് നമ്മള് ബന്ധപ്പെടുന്നെ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകള് നമ്മള് കൈത്തയ്യല് തയ്ക്കുക അല്ലെങ്കിൽ ഫ്ളവർ മേക്കിങ് അതൊക്കെ വച്ചാല് നമുക്ക് ഇൻറ്ററസ്റ്റിംഗ് ഉള്ള പരിപാടിയാണ് അതു നമ്മള്ക്ക് അതിനൊക്കെ നമുക്ക് നൂലുകളുമായിട്ട് ബന്ധപ്പെടാന് പറ്റുന്നുണ്ട് അപ്പോള് നമ്മള്ക്ക് വർണങ്ങളുടെ പല കോമ്പിനേഷൻസൊക്കെ ഉണ്ടാക്കി നമ്മള്ക്ക് വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നൊക്കെ ചെയ്ത് ഇപ്പോള്ത്തന്നെ മാത്തമാറ്റിക്സിലെ ആണേലും മാത്തമാറ്റിക്കൽ ആണേലും ഒരെക്സ്പീരിയൻസൊക്കെ ചെയ്യുമ്പോള് നമുക്കീ പല കളറില് ഒക്കെ ചെയ്ത് വയ്ക്കുമ്പോള് നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നാറുണ്ട് അതൊക്കെക്കൊണ്ട് നൂലുകളുമായിട്ട് ഇടപെടുന്നതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ തയ്യലൊരു പ്രൊഫെഷനാക്കാൻ ഞാനാഗ്രഹിക്കുന്ന വ്യക്തിയല്ല